എൻ്റെയൊക്കെ ചെറിയ കാലത്ത് ഞാനൊക്കെ ഞാനെന്നല്ല ഒട്ടുമിക്ക എല്ലാവരുടെ മനസ്സിലും ഒരുപാട് ഫോൺ നമ്പറുകൾ ഓർമ്മയുണ്ടായിട്ടുണ്ടാകണം ഇന്ന് ആരെങ്കിലും ഫോൺ നമ്പർ പറഞ്ഞ ഞങ്ങൾ അപ്പോൾത്തന്നെ ഫോണിലോട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിലോട്ടേക്കാണ് സേവ് ചെയ്തു വെക്കുന്നത് അതുകൊണ്ടെന്തായെന്നു വെച്ചാൽ ഇപ്പോൾ ഫോൺ പെട്ടെന്നെന്തെങ്കിലും ഫോർമാറ്റ് ആയിപ്പോവേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെയെങ്കിലും പെട്ടെന്ന് വിളിക്കണമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും ഫോൺ നമ്പറില്ല ആരും എഴുതി വെക്കുന്നില്ല പണ്ടൊക്കെയാണെങ്കിൽ ഒരു കുഞ്ഞു ഡയറിയിൽ നമ്മളതെല്ലാവരുടെ നമ്പറും എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകും അതുനോക്കി നമുക്ക് വിളിക്കാൻ പറ്റുമായിരുന്നു പിന്നെ കുറേ നമ്മുടെ മനസ്സിലുണ്ടാകും ഒട്ടുമിക്ക നമ്പറും എൻ്റെ ഒക്കെ മെമ്മറിയിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇന്നാണെങ്കിൽ അത് ഒട്ടുമില്ല രണ്ടാളുടെ നമ്പർ പോലും ബൈ ഹാർട്ട് ആയിട്ട് അറിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഈ ഫോൺ വന്നതിനു ശേഷാമാണ് നമ്മുടെ ഓർമ്മ ശക്തിയും അതും ഇതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ പണ്ടൊക്കെ കടയിൽ അവർക്ക് നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് സാധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു നേരെ നേരെ അവർ സാധങ്ങളുടെ വില എഴുതിയിട്ട് കൂട്ടിയിട്ടാണ് നമുക്ക് തരുന്നത് ഇന്നിപ്പോൾ എല്ലാം കാൽക്കുലേറ്റർ അല്ലെങ്കിൽ എല്ലാം കമ്പ്യൂട്ടർ ആണ് എല്ലാം കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രിൻ്റിങ് ആണ് കമ്പ്യൂട്ടർ ബില്ലിങ്ങാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ഓരോ കഴിവുകൾ ഇങ്ങനെയുള്ള പുതിയ സാങ്കേതിക വ് വിദ്യ വന്നപ്പോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെയാണെങ്കിൽ വാച്ച് വാച്ചിൻ്റെ ഉപയോഗം ഒരുപാട് കുറഞ്ഞു പണ്ടെല്ലാവരുടെ കയ്യിലും വാച്ചുണ്ടാകും വാച്ചിൽ നോക്കിയിട്ടാണ് നമ്മൾ സമയം മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഫോൺ വന്നപ്പോൾ ആരും വാച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ ടോർച്ച് ടോർച്ചും കൊണ്ടു പോകില്ല എല്ലാം ഈ ഒരു ഫോണിലുണ്ടല്ലോ കാര്യങ്ങളൊക്കെ വാച്ചുണ്ട് സമയമുണ്ട് ടോർച്ചിനു ടോർച്ചുണ്ട് അപ്പോൾ അതൊന്നും കൊണ്ടുപോകുന്നില്ല കണക്കു കൂട്ടാൻ കാൽക്കുലേറ്റർ വേണ്ട എല്ലാം ഇപ്പോൾ ഫോണിലടങ്ങിയതുകൊണ്ട് ഒരു ഫോണെടുത്ത് നടക്കും പക്ഷെ അത് നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കിട്ടുന്ന നമ്മുടെ തല ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ കുറയാണ് ചെയ്യുന്നത് ഇത്തരം സാങ്കേതിക വിദ്യ വന്നപ്പോൾ നമ്മുടെ ബുദ്ധിപോലും കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണിത് നീങ്ങി പോകുന്നത്